ഗ്രാമ പ്രദേശങ്ങളിലെ ആളുകൾ നിയമപരമായ സേവനങ്ങൾ മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പം കാരണം പറയുകയാണെങ്കിൽ ഇപ്പം സർക്കാർ സ്ഥാപനങ്ങളിൽ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായി ചെല്ലുകയാണെങ്കിൽ ഇപ്പം അവിടെ ഇപ്പം ഉദാഹരണത്തിനിപ്പം വില്ലേജ് ഓഫീസിൽ പഞ്ചായത്തുകളിലൊക്കെ വില്ലേജ് ഓഫീസിൽ നമ്മളൊരു വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുകയാണെങ്കിൽ നമ്മളോടവർ ആവശ്യമായ രേഖകൾ പറഞ്ഞ് തരികയും നമ്മളത് കൊണ്ട് ചെല്ലുമ്പോൾ അവർ ഇതുപോരാ വേറെന്തെങ്കിലും വേണം വേറെ രേഖകൾ വേണം ആധാറു വേണം റേഷൻ കാർഡ് വേണം അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഏതാണ്ട് ഒരു ഒരു വർഷ കാലത്തോളം നമ്മൾ ഇതിൻ്റെ പുറകിൽ നടക്കേണ്ട ഒരു ഒരു സാഹചര്യം ചിലയിടത്തെങ്കിലും വരുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെക്കുറിച്ചൊക്കെ അത് അത് വഴി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ സർക്കാർ സ്ഥാ ഇപ്പം പോലീസെന്ന് പറയുമ്പം നമുക്ക് എല്ലാ സേവനങ്ങളും തരുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊരു മോഷണം നടക്കുന്നു അപ്പം മോഷണം നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസിൽ പരാതിപ്പെടും പരാതിപ്പെട്ട് കഴിയുമ്പോൾ അവർ പരാതിപ്പെട്ട് പോയ്കഴിയുമ്പോൾ നമ്മൾ പരാതി കൊടുത്തവരും പോയി കഴിയുമ്പോൾ അവർ അന്വേഷണം നടത്തുന്നത് നമുക്ക് നമ്മൾ വിചാരിക്കും പക്ഷെ ഇതിനെപ്പറ്റി ഒരു അറിവോ ഇതിനെപ്പറ്റി ഒരു ഇതുമില്ലാതെ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർ നമുക്ക് വേദനിപ്പിക്കുന്ന തരത്തിലായിരിക്കും അവരുടെ മറുപടി വരികയുണ്ടാകുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിയമപരമായ സേവനങ്ങൾ മൂലം നമ്മളൊരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ ഒരു ചേട്ടൻ്റെ വീട്ടിൽ ഇതുപോലൊരു മോഷണം ഉണ്ടായി അപ്പോൾ സംഭവ സ്ഥലത്ത് പോലീസ് വരികയും അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്തു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും വിവരങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു അപ്പോൾ കാര്യങ്ങൾ തെരക് തിരക്കിയപ്പോളവർ പോലീസുകാർ വളരെ അപമര്യാദയായിട്ടും മാന്യതയില്ലാതെ ഒരു രീതിയിൽ തന്നെയാണ് പെരുമാറിയത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് നിയമപരമായ സേവനങ്ങളിൽ നിന്നൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അടുത്ത് വേറെ ചേട്ടൻ പറഞ്ഞിരുന്നു അപ്പം അവർ എന്തോ ഒരു വിൽ പഞ്ചായത്തിൽ ചെന്നപ്പോൾ പഞ്ചായത്തിലൊരു എന്തോ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്നപ്പോൾ ആദ്യമേ അവർ രണ്ട് മൂന്ന് രേഖ കൊണ്ട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു അതുകൊണ്ട് ചെന്നപ്പോൾ അവർ പറയുന്നത് ഇത് പോര വേറെ രേഖ വേണം ആധാരം വേണം അത് വേണം ഇത് വേണം കോപ്പി പറ്റത്തില്ല അങ്ങനെ ഫോട്ടോ വേണം അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി ഏതാണ്ടൊരു ഒന്നൊന്നര വർഷത്തോളം ആ ചേട്ടനെ ഇട്ട് ഓടിച്ചു എന്ന് പറയുകയുണ്ടായി ഇപ്പം ഇതെല്ലം ഒരു ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുണ്ടാകുന്നത് ഇപ്പം ഗ്രാമപ്രദേശമായാൽ പോലും നിയമപ്രകാരമുള്ള ഒരു സഹായങ്ങളും അങ്ങോട്ടൊന്നും ചെല്ലുന്നില്ല എല്ലവരും ഒരു പുച്ഛത്തോടെയാണ് സേവനങ്ങൾക്ക് സേവനങ്ങൾ നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നാലും ആർക്കുമൊരു ഇതില്ലാതെ സീരിയസ്നെസ്സ് ഇല്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഗ്രാമപ്രദേശത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും ഉണ്ട് പ്രശ്നങ്ങൾ ഇല്ലാത്തവരുണ്ട് കൂടുതലായും പ്രശ്നങ്ങൾ ഉള്ളവർ തന്നെയാണ് ഇപ്പം അവരൊക്കെ ഓരോ ആവശ്യത്തിന് ഓരോ സ്ഥാപനങ്ങൾ കറിയിറങ്ങുമ്പോൾ നമുക്ക് കണ്ണീരോടെ തിരിച്ച് പോകേണ്ട ഒരവസ്ഥയാണ് മിക്ക സ്ഥലത്തും വരുന്നത് അതിപ്പം നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു ഘടകം തന്നെയാണ് പിന്നെയെന്ന് പറയുമ്പോൾ പോലീസിൻ്റെ തന്നെയാണ് ഏറ്റവും ഇതായിട്ടുള്ളത് നമ്മളൊരു പരാതി കൊടുത്താൽ അതിനെ അന്വേഷിച്ച് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് നമുക്കൊരു മറുപടി തരികയോ അതോ അതിൻ്റെ കുറ്റവാളികളെ കണ്ടു പിടിക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് അവർ നമുക്ക് നല്ലൊരു സേവനം തരുന്നത് പക്ഷേ ഇതിപ്പം നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ ഒരുമാതിരി അപമര്യാദയായി പെരുമാറുകയും അവരുടെ എന്തോ വേണ്ടാത്ത കാര്യം ചെയ്തു പോയ പോലൊരു ഇതാണ് നമ്മുക്ക് പോലീസുകാർ തരുന്നത് ഓരോ സർക്കാർ സ്ഥാപനത്തിനും ഇതുപോലെ ഇതുപോലെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ എവിടെ ചെന്നാലും ഇങ്ങനെയാണ് സേവനങ്ങൾ കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് നിയമപരമായ സേവനങ്ങൾ കാരണം നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതിപ്പം പോലീസ് സ്റ്റേഷൻ ആയാലും അതുപോലെയുള്ള പഞ്ചായത്ത് വില്ലേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ഉണ്ടാകാറുണ്ട് നിയമത്തിൻ്റെ ഒരു ഇതുപോലും നമുക്ക് ലഭിക്കുന്നില്ല ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കാണ് കൂടുതലായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പണക്കാരൻ്റെ അടുത്ത് ഒരു തരവും പാവപ്പെട്ടവൻ്റെ അടുത്ത് ഒരു തരവുമാണ് ഈ നിയമം നിൽക്കുന്നത് പാവപ്പെട്ടവനെ പരമാവധി ഇട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും അവനെ എത്ര നാൾ വേണമെങ്കിലും ഇതിൻ്റെ പുറകേ നടത്തുകയും ചെയ്യുന്നു പക്ഷേ പണക്കാരൻ എന്ത് പണമുള്ളവൻ എന്തും ആകാമെന്നുള്ള സ്ഥിതിയാണിപ്പോൾ അത് പൊലീസായാലും സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥനായാലും പണമുള്ളവൻ്റെ കൂടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് നിയമപരമായിട്ടുള്ള ഒരു സേവനങ്ങളും ഇതുവരെ ലഭിക്കുന്നില്ല